കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിൻ്റെ പഠിപ്പിക്കുന്നത് പ്രധാനമാണ് ഇന്നത്തെ ഈ ലോകത്തില് കുട്ടികൾക്കങ്ങനെ മലയാളം എഴുതാനും വായിക്കാനും അറിയുകയില്ല പക്ഷേ അത് നമ്മള് വീട്ടില് മാതാപിതാക്കള് സ്കൂളില് പോയി കഴിഞ്ഞാല് കുട്ടികളോട് പിന്നെ അദ്ധ്യാപകര് പഠിക്കുന്നതിനും പറഞ്ഞ് കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതിലുപരി മാതാപിതാക്കളായ നമ്മളോരോരുത്തരും കുട്ടികളെ വീട്ടിലിരുത്തി അക്ഷരങ്ങള് അടിസ്ഥാനം എന്നായം എൽ കെ ജി ക്ലാസ്സില് പോകുമ്പോള് തന്നെ അടിസ്ഥാനമായിട്ട് അക്ഷരങ്ങള് നന്നായിട്ട് പഠിപ്പിക്കുക അതിന് ശേഷം ഓരോ വാക്കുകള് ചെറിയ ചെറിയ വാക്കുകൾ പഠിപ്പിക്കുക അതിന് ശേഷം വലിയ വലിയ പാരഗ്രാഫുകള് അത് സെൻറ്റെൻസ് അങ്ങനുള്ളതൊക്കെ ചിലത് വായിക്കാൻ പഠിപ്പിക്കുക നമ്മുടെ വീട്ടിലാണ് കുട്ടികളെ കൂടുതലായിട്ടും മലയാളം പഠിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവരെ പുസ്തകങ്ങള് വായിപ്പിക്കുക കഥകള് വായിപ്പിക്കുക അങ്ങനെയുള്ള മലയാളം സംസാരിക്കുന്നതിനുപരി നമ്മള് വായിക്കാനും നല്ല രീതിയില് തന്നെ സംസാരിപ്പിക്കാനൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക സ്കൂളില് ഇംഗ്ലീഷ് മീഡിയം മിക്കവാറും കുട്ടികൾക്കെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് അപ്പോള് അപ്പോള് കൂടുതലായിട്ടും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കും പക്ഷേങ്കില് അവർക്ക് മലയാളത്തിനോട് കൂടുതല് സമയം കിട്ടാറില്ല അപ്പോള് മലയാളം അവരെ നല്ല രീതിയില് തന്നെ നമ്മള് അടിസ്ഥനമായിട്ട് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോള് വീടുകളിൽ തന്നെയാണതിനെക്കുറിച്ച് കൂടുതലായിട്ടും അവരെ പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് നമുക്ക് മലയാളം അത്യാവശ്യമാണ് നമ്മുടെ ഗവണ്മെൻറ്റ് രീതിയില് എല്ലാം വരുമ്പഴ്ത്തേക്കും മലയാളമാണല്ലോ അവിടെ കൂടുതലായിട്ടുപയോഗിക്കുന്നത് അപ്പോള് കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യവുമില്ല അപ്പോഴതാണ് അവർക്ക് പ്രധാനമായിട്ടും വരുന്നത് അപ്പോള് നമ്മള് നല്ല രീതി തന്നെയവരെ പഠിപ്പിച്ച് എടുത്തെങ്കില് മാത്രമേ കുട്ടികൾക്ക് അതിനോട് അതിനെ അനുബന്ധിച്ചവർക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളു